തീര്ച്ചയായിട്ടും ഞാന് ഒരു ഈ അടുത്തൊരു ട്രൈയിന് യാത്ര ചെയ്യേണ്ടി വന്നു എനിക്കൊരു ജോലീടെ ആവശ്യത്തിന് ട്രെയിന് യാത്ര ചെയ്യേണ്ടി വന്നു ഞാൻ അപ്പം ആദ്യമായിട്ടാണ് ട്രെയിന് യാത്ര ചെയ്തത് എന്താണ് എങ്ങനെയാന്നൊന്നും എനിക്കറിയില്ല ഫസ്റ്റ് ടൈമാണ് ഞാനപ്പം അത് ചെയ്തത് ട്രെയിന് യാത്ര ചെയ്തു നമ്മൾ ടിക്കറ്റെടുത്തു എല്ലാം എടുത്തു അവിടെ നമ്മൾ ഫസ്റ്റ് ടൈമാണ് നമ്മൾ പോകണത് അപ്പോള് അതിനകത്ത് ഭായിമാർ മീൻസ് ബംഗാളിമാരുണ്ടായിരുന്നു അവക്കടെ ഭാഷയായാലും ഹിന്ദിയായിരുന്നു നമുക്ക് ലാംഗ്വേജ് പ്രശ്നം നമുക്ക് എന്താ ചെയ്യേണ്ടേന്ന് നമുക്കൊരു ഇത് അതുപോലെ തന്നെ നമുക്ക് സുരക്ഷ കുറച്ച് കുറവായിരിക്കും നമ്മൾ ഒറ്റക്ക് യാത്ര ചെയ്യുമ്പം കുറച്ച് കുറവായിരിക്കും നമുക്ക് ടെന്ഷനും പേടിയും നല്ല ഇതും നമുക്ക് വര്ദ്ധിക്കുന്നുണ്ടാവും അതുപോലെ തന്നെയാണ് നമുക്ക് ഫുഡിന്റെ കാര്യത്തിലും ഫുഡ് പ്രശ്നം നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങള് ഉണ്ടാവും പിന്നെ സുരക്ഷിതത്വമാണ് നമുക്ക് മെയിനായിട്ട് നമുക്ക് ഇതാണ് അത് വളരെയധികം നമുക്ക് കുറവായിരിക്കും കാരണംന്ന് വെച്ചാൽ നമ്മൾ നമ്മള് ഒറ്റക്ക് യാത്ര ചെയ്ത് സംസ്ഥാനങ്ങളിലേക്ക് നമ്മള് പോകുമ്പോൾ നമ്മളെ ഇപ്പം കൂടെ ആരുമില്ല സ്വഭാവികമായും നമുക്കൊരു പേടിയും ടെന്ഷനും സുരക്ഷിതത്വം നമുക്ക് വളരെ അധികം കുറവായിരിക്കും ഞാന് കഴിഞ്ഞ ദിവസം പോയപ്പോൾ തന്നെ ആ ട്രെയിനിൽ ബംഗാളിമാരുണ്ടായിരുന്നു അവർ ഹിന്ദി സംസാരിക്കുന്നു ലാംഗ്വേജ് എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു ലാംഗ്വേജ് ഇപ്പം നമ്മൾ ലാംഗ്വേജ് നന്നായിട്ട് അറിഞ്ഞിരിക്കണം അവക്കടെ പല രീതിയിലുള്ള പെരുമാറ്റം അത് നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കിയ കാര്യമായിരുന്നു അതുപോലെ തന്നെ അതേപോലെ പട്ടണങ്ങളിൽ പട്ടണങ്ങളിലേക്ക് പോയാല് നമുക്ക് അങ്ങനെയാണ് സുരക്ഷിതത്വം വളരെയധികം ഇപ്പം കുറവാണ് സ്ത്രീകൾ സുരക്ഷിതത്വം വളരെയധികം കുറവാണ് അത് നമ്മള് നമുക്ക് വളരെയധികം കുറവാണ് നമുക്ക് മറ്റു സംസ്ഥാനങ്ങളായാലും നമുക്ക് നാട്ടിലായാലും എവിടെയായാലും നമുക്ക് വളരെയധികം കുറവായിരിക്കും ഞാന് കഴിഞ്ഞ ദിവസം പോയപ്പോൾ എനിക്ക് ഭയങ്കര ടെന്ഷനുണ്ടായിരുന്നു നമ്മള് ഒറ്റക്ക് യാത്ര ചെയ്യുമ്പോൾ ഫുഡായാലും ലാംഗ്വേജായാലും മീൻസ് സംസാരിക്കണ രീതിയായാലും നമുക്ക് പറ്റോന്ന് നല്ലോരു ടെൻഷനുണ്ടായിരുന്നു കൂടെയുള്ളവര് ഹിന്ദി സംസാരിക്കുന്നു ഇംഗ്ലീഷ് ഇംഗ്ലീഷ് സംസാരിക്കുന്നു നമ്മൾ മലയാളിയായ നമുക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായ ഒരനുഭവമായിരുന്നു പക്ഷേ എന്നാലും നമ്മളത് ഓവര്കം ചെയ്തു സുരക്ഷിതത്വം ഇല്ലാന്നല്ല പക്ഷേ പൊതുവേ സുരക്ഷിതത്വം നമുക്ക് ഇപ്പം കുറവാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വളരെയധികം പ്രോബ്ലം മാനസികമായി കുറച്ച് പ്രോബ്ലെംസും നമുക്ക് ഉണ്ടായിട്ടുണ്ട് നമുക്ക് യാത്ര ചിലവായാലും ട്രാവെല്ലിംഗ് എന്താ പണം ഇതൊക്കെ നമുക്ക് വളരെയധികം കുറവായിരിക്കും അങ്ങനത്തെ കുറെ പ്രശ്നങ്ങള് നമുക്ക് അനുഭവിക്കേണ്ടി വന്നു